ഇങ്ങനെ ഓട്ടം വർക്കൌട്ട് ചെയ്തിട്ടുണ്ട് രാവിലെ ഒരു അഞ്ചുമണിക്ക് എഴുന്നേറ്റ് ഒരു ആറുമണി ആറര വരെ പോയിട്ടുണ്ട് നല്ലൊരു അനുഭവമാണ് എന്താ വെച്ചാൽ നമുക്കൊരു ഉന്മേഷം തരും അതുപോലെത്തന്നെ നമുക്ക് വണ്ണം കുറയ്ക്കാനൊക്കെ സഹായിക്കും നമ്മൾ അതിനനുസരിച്ച് നിന്നാൽ വണ്ണം കുറയ്ക്കാൻ സഹായിക്കും നമ്മൾക്ക് നല്ലൊരു ആരോഗ്യം തരും പിന്നെ അതുപോലെത്തന്നെ രാവിലെയങ്ങനെ ഓടാൻ പോവുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു ഉണർവ്വായിരിക്കും ആ ഒരു ദിവസം ഫുള്ളും നല്ലൊരു ഉണർവ്വായിരിക്കും പിന്നെ നമ്മുടെ രക്തയോട്ടം വർദ്ധിക്കും അത് അതൊക്കെകൊണ്ട് നമ്മുടെ ആരോഗ്യം ഒരു നല്ലൊരു ആരോഗ്യമായിരിക്കും നമുക്ക് അധികം അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല പിന്നെ എന്താണെന്നുവെച്ചാൽ ഇപ്പം നടക്കാൻ പോവുന്നത് നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഒരു കാര്യമാണ് നടക്കാൻ പോവുന്നത് വണ്ണം കുറയാൻ സഹായിക്കും അതുപോലെത്തന്നെ രക്തയോട്ടത്തിനുള്ള സംവിധാനം ഉണ്ടാവും അതുപോലെത്തന്നെ നമുക്കൊരു നല്ലൊരു ഉണർവ് കിട്ടും ആ ഒരു ദിവസം അങ്ങനെയൊക്കെ നല്ലൊരു ഇത് നല്ലൊരിത് അങ്ങനെയൊരു നല്ലൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് നമ്മളെ